ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ കൂടുതലായിട്ടും ചിത്രം വരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പം ചിപ്പ ചെറുപ്പത്തിൽ നല്ലോണം ഞാൻ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ വീട്ടീന്ന് എന്നോട് പറഞ്ഞു എവിടെയും പോകണ്ട വരയ്ക്കാനൊന്നും പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓഫ് ലൈൻ ആയിട്ടാണ് പോയത് അതായത് കട ഒരു പഠിപ്പിക്കുന്ന ഒരു ഇതിൽ ഇവിടെയാണ് ഞാൻ പോയത് അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ എനിക്ക് ചിത്രം വരയ്ക്കാനും കാര്യങ്ങൾക്കുമൊക്കെ പഠിക്കാൻ പറ്റി ഇപ്പോൾ ഒരാളുടെ ഫേസ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ അതിന് ആദ്യം നമ്മളതിന് ഔട്ടർ ലൈനൊക്കെ വരച്ച് പിന്നെ എല്ലാം കണ്ണിൻ്റെ ആ ഭാഗവും മൂക്കിൻ്റെ ആ ഭാഗവും വായിൻ്റെ ആ ഭാഗവും ഒക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അടുത്തിടെ ഞാനിപ്പോൾ വരച്ച ഒരു ചിത്രം ഗണപതിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു അത് അപ്പോൾ അതിന് ഞങ്ങൾ ഞാൻ കൂടുതലായിട്ടും ലെഡ് പെന്സില് പോലുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിനും അങ്ങനെ ഔട്ടർ ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിപ്പോൾ എന്താ പറയാ അവസാനമായിട്ട് വരച്ച ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ ഗണപതിൻ്റെ ചിത്രമാണ്